സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം എല്ലാ വിദ്യാർത്ഥികളും ഉന്നത വിദ്യാഭ്യാസം നടത്തുകയോ അല്ലെങ്കിൽ കുടുംബ ബിസ്നസ്സിൽ തുടരുകയോ അല്ലെങ്കിൽ അവരുടെ പ്രദേശത്ത് താങ്കളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലിക്ക് പോവുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സ്കൂൾ വിദ്യാഭ്യാസം അടിസ്ഥാന മൗലിക അവകാശമായതുകൊണ്ട് തന്നെ എല്ലാവരും അത് നേടുന്നുണ്ട് അതിനുശേഷം മിക്ക ആളുകളും തങ്ങളുടെ പരമ്പരാഗത ബിസ്നസ്സ് ചെയ്തുവരികയോ അല്ലെങ്കിൽ തങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയുമായി ഒരു ബന്ധവുമില്ലാത്ത ജോലിക്ക് പോവുകയോ ആണ് ചെയ്യുന്നത് ഇത് തന്നെ പുരുഷന്മാരുടെ കാര്യമാണ് മലപ്പുറം ജില്ലയിലെടുത്തു നോക്കുകയാണെങ്കിൽ മിക്ക സ്ത്രീകളും അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത നേടിയതിനു ശേഷം വിവാഹം കഴിച്ച് സാധാരണ വീട്ടമ്മമാരായിരിക്കുകയാണ് പതിവ് വളരേ കുറച്ചാളുകൾ മാത്രമാണ് സ്ത്രീകളിൽ ജോലിക്ക് പോകുകയും അതും തങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലിയിൽ തുടരുകയും ഒക്കെ ചെയ്യുന്നത് ഇതല്ലാതെ ഭൂരിഭാഗം ആളുകളും ചെറിയ വീട്ടിലൊതുങ്ങി ക്കൂടുകയാണ് സ്ത്രീകളിൽ ഭൂരിഭാഗം ആളുകളും വീട്ടിലൊതുങ്ങി ക്കൂടുന്ന ഒരു പ്രവണതയാണ് കണ്ടു വരുന്നത് എന്നാൽ സ്ത്രീകളപേക്ഷിച്ച് നോക്കുമ്പോൾ പുരുഷന്മാർ ഒന്നുകൂടി ജോലിക്ക് പോകുകയും തങ്ങളും പഠിച്ച പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ എടുത്ത് അതുമായി ബന്ധപ്പെട്ട് ജോലിയിലേർപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ണ്ട്